ഹലോ ആ ആ ആര് അതെ അതെ അതെയോ എന്ത് പറ്റി അതെയോ ആ ആ

ഞാൻ ഇപ്പോൽ ഉണ്ട് കുറച്ച് കുറച്ച് കഴിയുമ്പോൾ പോവും ഇപ്പോൽ ഉണ്ട് ഇവിടെ ആ ആ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇപ്പം തന്നെ വന്നോളൂ ഇപ്പോൾ ഉണ്ട് ഒരു പത്ത് മിനിട്ട് കഴിഞ്ഞാൾ ഞാൻ ഇവിടുന്ന് പോവും ആ ആ ആ അയ് ഇവിടെ ഇപ്പോൾ രണ്ടാളുണ്ട് ആ ആ രണ്ടാളുണ്ട് നിങ്ങൾ വേഗം വന്നോളൂ ആ ആ ആ ആയി ആയി ആ ആ ആ ടോക്കൺ എടുക്കേണ്ട രണ്ടാളേ ഉള്ളൂ ആ ആ ആ ആയി വന്നോളൂ

അതെയോ അപ്പോൾ മാറ്റിത്തരാം ഞാൻ മാറ്റിത്തരാം അപ്പോൾ അപ്പോൾ നമുക്കൊരു എക്സ് റേ എല്ലാം നോക്കാം

ആ അപ്പോൽ ഒന്ന് നിങ്ങൽ അതെയോ അപ്പോൽ വല്ല വേറെ മാറ്റിത്തരാം ഞാൻ മാറ്റിത്തരാം വേറെ ഇതിലേക്ക് എഴുതി തരാം നിങ്ങൾക്ക് വേറെ സർജന് കാണിക്കാൻ എഴുതി തരാം ആ എഴുതി തരാം ഞാൻ നിങ്ങൾ വന്നോളൂ അപ്പോൾ വേഗം വന്നോളൂ എന്താണ് വെച്ചാൽ മറ്റേ ഡോക്ടർ പോവും ഞാൻ എഴുതി തന്ന ഡോക്ടറേ അവിടെ അതെയോ ആ അപ്പോൾ ചുമയുടെ ഒരു സിറപ്പും തരാം ആ ആ ആ ആയി ആ വേഗം വന്നോളൂ നിങ്ങൾ കേട്ടോ ഉം ആയി ആയി ആയി ഉം ആ അതിൽ നിന്നുതന്നെ തരാം ഇത് തരാം ആ ആ ആ ആയി അതെല്ലാം അപ്പോൽ ഒന്ന് ചെക്ക് ചെയ്യാം എങ്ങനെ ഉണ്ട് എന്ന് ആ ആ അപ്പോൾ നിങ്ങൾ വേഗം വന്നോളൂ ആ രണ്ട് പേരല്ലേ ഇൽ അതെയോ നമ്പർ ഉണ്ടോ ആ ആയി അങ്ങനെ ആവും അപ്പോൾ ആയി ആയി നാളെ അപ്പോൾ വേഗം വരൂ നിങ്ങൾ രാവിലെ പത്ത് മണി ശേഷം

അതെയോ ആ ആ അപ്പോൾ വീട്ടിലേക്ക് വന്നോളൂ നിങ്ങൾ വീട്ടിലേക്ക് വന്നോളൂ വീട്ടിലേക്ക് വന്നോളൂ ആ വീട് ആ അവിടെ തന്നെ കുറച്ച് അങ്ങോട്ട് നിങ്ങൾ എവിടെ സ്ഥലം എവിടെ നിങ്ങളുടേത്

അമ്മൻകൊടോ ആ അപ്പം നിങ്ങൾ ഞാനില്ലേ ആ മറ്റേ നെല്ലിക്കുന്ന് അങ്ങോട്ട് പോവുന്നില്ലേ തീയേറ്ററിൾ ആ ആ ആ ആയി ആയി അപ്പോൾ നാളെ വിളിക്ക് നിങ്ങൾ ആയി ആയി ശരി ആ ആയി ആയി ഞാൻ നാ ആയി ആയി നാളെ വന്നോളൂ ആയി ആയി ശരി